ബഹുമാനപ്പെട്ടവരെ ഞാനെൻ്റെ വീട്ടിൽ കന്നുകാലികളുണ്ട് അവയെ പോറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമം പിടിച്ച കാര്യമാണ് കാരണം ഇവറ്റകൾ എപ്പോഴാണ് കാറിച്ച തുടങ്ങുക അത് നിർത്തുകയെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയില്ല കാരണം പുല്ല് ഫ്രണ്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാലും വെറുതെ കിടന്ന് കാറിക്കൊണ്ടിരിക്കുകയും ഇവർ അതു കൊണ്ടു തന്നെ വീട്ടുകാർക്ക് നല്ലൊരു പണിയാണ് കന്നുകാലികളെ വളർത്തുകയെന്നുള്ളത് രസം പിടിച്ചൊരു പരിപാടിയാണ് കൂടാതെ തന്നെ നല്ല പാടു പെട്ടൊരു പരിപാടി തന്നെയാണ് കന്നുകാലികൾ നമുക്ക് പാല് തരും പാല് നമ്മൾ സൊസൈറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ആ വരുമാനം വെച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടു പോകാൻ സാധിക്കും കന്നാലികൾ എപ്പോഴും നമുക്കൊരസറ്റായിരിക്കും കന്നുകാലികൾക്കുണ്ടാകുന്ന കുട്ടികളെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കവിടുന്ന് വീണ്ടും വരുമാനം നേടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഒരു ദിവസം മുഴുവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കന്നുകാലികൾ രാവിലെ പുലർച്ചയിൽ ഓക്കെയും പിണ്ണാക്കുമടങ്ങിയ മിശൃതം നമ്മൾ വലിയ പാത്രങ്ങളിലാക്കി പശുക്കളുടെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കും ഇവ പശുക്കൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരുകെട്ട് പുല്ലുകൾ പശുവിൻ്റെ മുൻപിലേക്ക് വെച്ച് കൊടുക്കും ഇവ കഴിച്ചില്ലെങ്കിൽ പശുവിനിട്ട് തലോടിയിട്ട് അടുത്ത ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവേളക്കു ശേഷം ഒരു ഒരു വലിയ ചെമ്പിൽ കുറച്ച് വെള്ളമൊഴിക്കും അവ കുടിക്കാൻ കൊടുക്കും ഇവ കുടി ഇവ കുടിച്ച് കഴിഞ്ഞ ശേഷം പശു വിശ്രമിക്കുകയും വിശ്രമിച്ചില്ലെങ്കിൽ നിൽക്കുകയും അവസാനം ആ ഒരു ആ ഒന്ന് ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെയാകുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൊടുക്കുകയും വെള്ളം കുടിച്ച ശേഷം പശുവിൻ പാൽ കറന്ന് പശുവിൻ പാൽ കറന്നു മാറ്റി വെക്കുകയും പശുവിനാവശ്യമായ രീതിയിൽ ഉള്ള ഓക്കയും പിണ്ണാക്കുമടങ്ങിയ മിശ്രിതം വീണ്ടും നമ്മൾ കുഴച്ച് പശുവിനു കൊടുക്കും ഇവ കഴിച്ച ശേഷം പശു പിന്നെയും റെസ്റ്റെടുക്കും പശു റെസ്റ്റെടുത്ത് കഴിയുമ്പോൾ വൈകുന്നേരമാകും വൈകുന്നേരമാകുമ്പോൾ നമ്മൾ കാടി വെള്ളവും നമ്മുടെ വീട്ടിൽ കഴിച്ച പഴത്തിൻ്റെ തൊലികളടങ്ങിയ ഒരു മിശ്രിതം നമ്മൾ പശുവിന് നീട്ടിക്കൊടുക്കും പശു അത് കുടിച്ച ശേഷം പിന്നെ രാത്രിയാകുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് പുല്ലിട്ട് കൊടുക്കും പശുവത് കഴിക്കും കിടക്കും